ഞാൻ ഈ നമ്മുടെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കലാരൂപമെന്നു പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ മംഗൽയാൻ അതായത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ മംഗൽയാൻ്റെ ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പ്ലാസ്റ്റർ ഓഫ് പാരിസ് പിന്നെ തെർമോക്കോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത് എന്താണെന്നു വച്ചുകഴിഞ്ഞാൽ അതിൽ നല്ല അത്യാവശ്യം കാണാൻ ഒരു ഒരു വലിപ്പമുള്ള മാതിരിയുള്ള ഒരു മോഡലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ആ അത്യാവശ്യം ഒരു പത്തു മുപ്പത് കിലോ വെയ്റ്റ് ഉണ്ടാകും പിന്നെ അതിൻ്റെ എല്ലാ സെറ്റപ്പ് അത് ഇതെങ്ങനെയാണോ മംഗളയാൻ്റെ സെറ്റപ്പ് അത് അതിൻ്റെ ആന്റിന കാര്യങ്ങൾ സോളാർ പാനൽ പിന്നെ അതിൻ്റെ റെസീവേഴ്സ് അങ്ങനെ പല അതായത് അതിൻ്റെ ഡിവൈസസ് മുഴുവൻ ഏകദേശം ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ മോഡലുപോലെ പറ്റാവുന്നപോലെ നമുക്ക് ഞാനും വേറെ രണ്ടു കൂട്ടുകാരും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയാണ് മൂന്നാളും കൂടിയാണ് അതുണ്ടാക്കിയത് അതിന് ഏകദേശം ഒരു ചിലവായിട്ടു വന്നത് ഞങ്ങൾക്ക് ഒരു രണ്ടായിരത്തി മൂവായിരത്തിൻ്റെ താഴെ പൈസയാണ് ഞങ്ങൾക്ക് ചിലവ് വന്നത് ചെലവ് വന്നത് അതെനിക്ക് നല്ലൊരു പ്രചോദനമായിരുന്നു പുതിയ പുതിയ മോഡൽ ഉണ്ടാക്കാനൊക്കെയായിട്ട് അതു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാന്ദ്രയാൻ്റെ ഒരു മോഡൽ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചന്ദ്രായൻ ത്രീ വിക്ഷേപിച്ചതിൻ്റെ ഇതായിട്ട് അതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ ആ ഡിവൈസസിൻ്റെ മോഡലും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ ഒരു താല്പര്യമുണ്ട് പിന്നെ ഞാൻ ഈ അത്യാവശ്യം നമ്മുടെ ഈ ബസ്സുകളും കാര്യങ്ങളും കെ എസ് ആർ ടി സി ബസ്സ് പ്രൈവറ്റ് ബസ്സുകൾ ലോറി കാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പിന്നെയെന്താണ് പ്രതിമയെന്ന രീതിയിൽ ഞാൻ ഈ എടയ്ക്കൊരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഏകദേശം ഗാന്ധിജിയുടെ സാമ്യമുള്ള ഒരു പ്രതിമയാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് അത്യാവശ്യം കണ്ടവരൊക്കെ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെന്നാണ് അവർ അഭിപ്രായം പറഞ്ഞത്